ആ പറഞ്ഞോളൂ ആ ഇപ്പോൾ നല്ല സീസണാണ് നമുക്ക് പോയി പറഞ്ഞാൽ വെർത്തായിരിക്കും കാരണം ഇവിടെ മൂന്നാറ് ഇടുക്കി തേക്കടിയും ഉണ്ടോ ആ ഓക്കേ അപ്പോൾ എത്ര ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യണത് ഓക്കേ അപ്പോൾ വണ്ടി വേണമല്ലേ എത്ര പേരുണ്ടാവും ഏഴു പേരുണ്ടാവുമല്ലേ ഓക്കേ അപ്പോൾ നമ്മുക്കിപ്പോൾ ഒരു ഉം വലിയ വണ്ടിതെന്നെ ഏഴു സീറ്റിൻ്റെ വണ്ടിതന്നെ വേണ്ടിവരും അല്ലേ അപ്പോൾ ഒരു ആറു ദിവസത്തെ ട്രിപ്പ് അല്ലെ അപ്പോൾ നമുക്കിപ്പോൾ അവിടെ ഹിൽ സ്റ്റേഷനൊക്കെ ഉണ്ടാവും കാണാൻ നമുക്കിപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം ഹിൽ സ്റ്റേഷൻ ഹില്ലൊക്കെ കാണാൻ ഉണ്ടാകും പിന്നെ ഫോറെസ്റ്റിന്റെ ഉള്ളിൽക്കൂടി ഉള്ള ട്രെക്കിംഗ് ഉണ്ടാവും അങ്ങനെയൊക്കെ ആണ് അവിടുത്തെ കാര്യങ്ങൾ വരുന്നത് ആ അത് ട്രെക്കിംഗും ഞങ്ങള് ഗെയ്ഡുണ്ടാവും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങള് പോയിട്ട് തിരിച്ചു ഇവിടെ എത്തണവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രോവൈഡ് ചെയ്തു തരും ചാർജിപ്പോൾ ആറു ദിവസത്തേക്ക് പറയുമ്പോൾ എത്ര പേരെന്നാണ് പറഞ്ഞത് പത്തുപേരോ ഏഴുപേരല്ലേ ആ അറിയാ അപ്പൊൾ നമ്മുക്കിപ്പോൾ ഒരാൾക്ക് ആറ് ദിവസത്തേക്ക് വന്നിട്ട് നാലായിരം രൂപയാണ് ഒരാൾക്ക് നാലായിരം രൂപ പിന്നെ ഈ സംഭവം ഈ ഈ സംഭവങ്ങളിങ്ങനെ പിന്ന നമ്മളൊരു ഫുഡ് ഇതിലുണ്ട് പിന്നെ എക്സ്ട്രാ അഡ്ഡിഷണൽ ആയിട്ട് നിങ്ങൾക്ക് വല്ല സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ അതിന് ചാർജ് എക്സ്ട്രാ വേണ്ടിവരും അല്ലാണ്ട് എല്ലാം നോർമൽ ഐറ്റംസ് സാധാരണ പ്രൊവൈഡ് ചെയ്യണതെല്ലാം നമുക്ക് ഇതിലുണ്ടാവും ഈ ഫുഡ് ഇതില് വരും ഈ പാക്കേജിൽ അപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻ നിങ്ങൾ ബഡ്ജറ്റ് എത്രയാണ് എങ്ങനെയാണ് ഉദേശിക്കുന്നത് ആ ആ സ്റ്റേ ചെയ്യാൻ നമുക്ക് റൂമുണ്ടാകും അവിടെ അല്ല ആക്കോമഡേഷൻ നമ്മള് തന്നെ സെറ്റാക്കിത്തരും നമുക്ക് ഇപ്പോൾ ടെന്റ് ആവശ്യം ഉണ്ടെങ്കിൽ നൈറ്റ് സ്റ്റേ എവിടെയെങ്കിലും ഫോറസ്റ്റിലോ ആവശ്യമുണ്ടെങ്കിൽ അത് സെറ്റാക്കിത്തരും അല്ല പറഞ്ഞാൽ നമുക്ക് അവിടെ റൂമുണ്ടാവും റൂം ഫുഡ്ഡോക്കെ നമ്മള് വേറെ പുറത്തു സേറ്റാക്കിയിട്ടുണ്ടാകും നൈറ്റ് ട്രെക്കിങ്ങും ഉള്ള സമയത്ത് എവിടെയെങ്കിലും ടെന്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളവിടെ സെറ്റാക്കിത്തരും അതും അപ്പോൾ ഈ ഐറ്റംസ് പറഞ്ഞ ഐറ്റംസ് ഒന്നുമില്ലെങ്കിലും നമ്മൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കിട്ടുന്നതുകൊണ്ട് ഫുഡ് സെറ്റാക്കിത്തരും കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് പാക്കേജെന്നു പറയണത് പിന്നെ ഹിൽ കയറുമ്പോൾ ഒരു രാവിലെ നേരത്തെ ഇറങ്ങേണ്ടി വരും അതേപോലെ ഇറങ്ങുമ്പോൾ കുറച്ചു ടൈം ആകും നമുക്ക് അതിൻ്റെ മുകളിൽ കയറി ഈ മൂന്ന് ഹിൽ സ്റ്റേഷനും മൂന്നാലഞ്ചു ഹിൽ സ്റ്റേഷനുണ്ട് അവിടെയൊക്കെ കയറി ഇതൊക്കെ കണ്ട് താഴത്ത് ഇറങ്ങുമ്പോഴേക്കും ടൈം ആവും കാരണം നമ്മൾ നടന്നുതന്നെ ട്രെക്ക് ചെയ്തു കയറണം അതിൻ്റെ മുകളിൽ ആ അപ്പോൾ അങ്ങോട്ട് ഒരു രണ്ടു മണിക്കൂറ് മൂന്ന് മണിക്കൂറിന്റെ അടുത്ത് മുകളിലേക്കുണ്ടാവും അതുപോലെ താഴത്തേക്കും ഇതുപോലെയുണ്ടാവും പിന്നെ നമ്മുടെ സ്റ്റാമിന അനുസരിച്ചിട്ടായിരിക്കും നമുക്കിപ്പോൾ നിന്ന് അറ്റ് എ ടൈം ഓടിക്കയറാൻ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ നിന്ന് സ്റ്റേ ചെയ്ത് സ്റ്റേ ചെയ്ത് ഇങ്ങനെ കയറി പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടൈം വേരിയേഷൻ വരും ആ ഇപ്പോൾ അത്യാവശ്യം തിരക്കുള്ള സമയം തന്നെയാണ് ഇപ്പോൾ എന്നാലും കുഴപ്പം ഉണ്ടാകില്ല നമുക്ക് ഇപ്പോൾ അധികം ബൂക്കിങ്ങൊനും ആയിട്ടില്ല അപ്പോൾ ബുക്കിംഗ് ഒക്കെ ആയിവരുന്നേ ഉള്ളു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല പക്ഷേ സീസൺ തന്നെയാണിപ്പോൾ പോകാൻ പറ്റിയ സീസൺ തന്നെയാണ് അപ്പോൾ നമുക്ക് എപ്പോഴേക്കാണ് പോകേണ്ടത് ആ ഡിസംബറിൽ ഒക്കെ ഓക്കെ അപ്പോൾ അഡ്വാൻസായിട്ട് ഒരു രണ്ടായിരം രൂപ പേ ചെയ്തോളൂ ഫസ്റ്റ് ബുക്കിംഗ് ചെയ്യാം ഓക്കേ അതുകഴിഞ്ഞിട്ട് നമുക്ക് പോവാം ഡിസംബർ എത്രാം തിയ്യതിയാണ് ഒക്കെ ഓക്കെ അപ്പോൾ അഡ്വാൻസ് അടച്ച് പേ ചെയ്ത് ഇതാക്കിയാൽ മതി ബുക്ക് ചെയ്താൽ മതി ആ ഓക്കേ ഞങ്ങൾ അവിടെ സെറ്റാക്കിത്തരും ഓക്കെ അല്ലേ